ഹലോ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ നമ്പർ ആര് തന്ന് നമ്പർ ആര് തന്ന് സാറെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ സാറിന്റെ ഉദേശം അനുസരിച്ചുളള സ്ഥലങ്ങൾ മൂന്ന് നാല് സ്ഥലങ്ങളിവിടെ കിടപ്പുണ്ട് സാറെ അതായത് നമ്മള് കൊല്ലത്തുവാണ് അടുത്തുണ്ട് പിന്നീട് നമുക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസായിട്ടുള്ള ചടയമങ്കലം ജഡായു പാറ ഇവിടെ അടുത്തുണ്ട് പിന്നെ നമുക്ക് ആര്യങ്കാവ് തെന്മല ഭാഗങ്ങളിൽ ഇക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് അവിടേയും കുറെ സ്ഥലങ്ങള് കിടപ്പുണ്ട് ഇങ്ങനെ മൂന്ന് നാല് ഏരിയയിൽ സ്ഥലം കിടപ്പുണ്ട് അപ്പം നമുക്ക് ആര്യങ്കാവ് ഏരിയയൊക്കെ ആണെങ്കില് ഇച്ചിരിയും കൂടെ വില കുറഞ്ഞ് ഇപ്പം കിട്ടുന്ന സ്ഥലം സമയമാണ് കാരണം അവിടെ ഈ വന്യ മൃഗങ്ങളുടെ ശല്യം ഉള്ളത് കൊണ്ട് ആൾക്കാരൊക്കെ കുറെ പേരിങ്ങനെ ഈ പിന്നെ വീടും ഇതൊക്കെ ഉപേക്ഷിച്ച് കാരണം കൃഷി ചെയ്യാന് പറ്റാത്തത് കൊണ്ട് അങ്ങനെ കുറെ സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട് ആ ആ ടൂറിസ്റ്റ്കളായി കഴിഞ്ഞാൽ അവിടുന്ന് നല്ല കാലാവസ്ഥയും പിന്നെ അതോടൊപ്പം തന്നെ തമിഴ്നാട് അടുത്ത് കിടക്കുകയാണ് പിന്നെ ഇവര്ക്ക് അവിടുത്തെ കാലാവസ്ഥ കുറെ കൂടി ചൂട് കുറഞ്ഞ കാലാവസ്ഥയാണ് പിന്നീട് അറിയാമല്ലൊ സാറിന് അറിയാമല്ലൊ അങ്ങോട്ട് ആ ഏരിയ അറിയാമല്ലൊ കാരണം അവിടെ നല്ല ടൂറിസം അത് നമ്മുടെ ഇക്കോ ടൂറിസം ഉണ്ട് അതോടൊപ്പം തന്നെ ആര്യങ്കാവ് മറ്റെ പാലരുവി വെള്ളച്ചാട്ടം ആ തെന്മലയും പിന്നെ അത് കഴിഞ്ഞ് രാജാകൂപ്പ് എന്നൊരു സ്ഥലമുണ്ട് ഇതിനടുത്ത് അപ്പം അവിടെ ഒക്കെയെന്ന് പറയുന്നത് നന്നായിട്ട് ആ നല്ല ഒരു ക്ലൈമറ്റ് നല്ലൊര് ക്ലൈമറ്റാണ് പിന്നെ നല്ല പ്രകൃതി ഭംഗിയാണ് ആ പിന്നെ ആ ആ നമ്മളിപ്പം ആ അതൊരൂ ക അതൊരു ക അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ സാറെ ഇപ്പം വില കുറയുന്നതിൻ്റെയും കാരണം അതാണെ കാരണം ആള്ക്കാര് അവിടുന്ന് ആള്ക്കാര് പോവുകയാണ് അവിടുന്ന് കൂടുതലും ആ ആ ആ ആ അത് കേൾക്കണോ ആ അങ്ങനെയാണെൽ നമുക്ക് ഈ ചടയമംഗലമുണ്ട് പിന്നെ നമ്മുടെ കൊല്ലത്തോ അടുത്ത് കൊല്ലത്തിൻ്റെ അടുത്ത് അടുത്ത് വരമ്പത്തേക്കും വില കൂടും സാറെ ആ കൊല്ലത്തോട്ട് ടൗണിനോട് അടുക്കുംതോറും നമുക്ക് വില കൂടും പിന്നെ ചടയമംഗലമൊക്കെ ആണെങ്കില് അവിടെ നമുക്ക് ഇപ്പം നമ്മുടെ ഹയ എം ജി റോഡ് ഇതൊക്കെ ചേര്ന്ന് കിടക്കുകയാണ് യാത്രാ സൗകര്യമൊക്കെ ഉണ്ട് ആ അതില് നമുക്ക് അത് ആ ഒരൂ റേഞ്ചിലുള്ള സ്ഥലങ്ങൾ ഇപ്പം നമുക്ക് ടൗണ് ഇച്ചിരിയും കൂട്ടെ മാറുവാണെങ്കില് നമുക്ക് ഈ പറഞ്ഞ ടൂറിസ്റ്റാകുമ്പം ഇച്ചിരി ഇത് പിന്നേ ബഹളത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിൽക്കണ്ടേ അപ്പം അങ്ങനെ ഉള്ള സ്ഥലങ്ങള് രണ്ട് മൂന്ന് പ്ലോട്ട് അപ്പം സാറിന് സൗകര്യം എന്നാ വരികയാണെങ്കിൽ നമുക്ക് ഞാനാ പ്ലോട്ടെല്ലാം കാണി അപ്പം സാറിന് സൗകര്യം അപ്പം ഈ ചെറിയ പിന്നെ കട്ടിലുകളൊക്കെ വെക്കാനായാലും പിന്നെ അങ്ങനെയുള്ള എല്ലാ നല്ല സംവിധാനങ്ങളും നിരന്ന സ്ഥലവും അതോടൊപ്പം തന്നെ എല്ലാ യാ പിന്നെ മറ്റുള്ള ശല്യങ്ങളൊക്കെ അതായത് മറ്റ് ബാഹ്യമായ ശല്യങ്ങളൊന്നുമില്ല ദേ ഈ മൂന്ന് നാല് ഏരിയയും സാറിന് കിടപ്പുണ്ട് കൊല്ലത്തിന്റെ അങ്ങേയറ്റമുണ്ട് മധ്യ സ്ഥലത്തുണ്ട് പിന്നെ കൊല്ലം കൊല്ലത്തോട് അടുപ്പിച്ച് ഒന്നുണ്ട് ആ അപ്പം സാറിന് വന്നിട്ട് ഈ ഓരോന്നിന്റെ പിന്നെ ഇതിപ്പം നമ്മള് പിന്നെ കൊല്ലത്തിന്റെ അടുത്ത് വരുമ്പം നമുക്കൊരു ഒരു ഒന്നേകാല് എന്നുള്ളത് ഇച്ചിരിയും കൂടെ കൂടും ആ ആ അതിപ്പം നമുക്ക് ഇപ്പം ഇന്ന ഇപ്പം അതപ്പം ഏത് കച്ചൊ ആ ഏത് കച്ചവടവും നമുക്ക് ഇപ്പഴത്തെ ഒരു ഇതനുസരിച്ച് അങ്ങനെയാണല്ലൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ അപ്പം എല്ലാവര്ക്കും അറിയാം അപ്പോൾ വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും നമുക്കെല്ലാവര്ക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്സ് ചെക്ക് ചെയ്യണം ആ ഡോക്യുമെന്സ് ചെക്ക് ചെയ്തെങ്കില് ആ ഉണ്ട് അപ്പം നമുക്ക് ആ ഡോക്യുമെന്സ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന മൂന്ന് നാല് പ്ലോട്ട്കള് സാറൊര് സമയം അറേഞ്ച് ചെയ്തിട്ട് ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് പ്ലോട്ടുകളും കാണാം കണ്ടിട്ട് നമുക്ക് ഈ ഏവിടെയാണോ സാറിന് ഇഷ്ടപ്പെടുന്നത് ആ പാര്ട്ടിക്ക് ഇഷ്ടപ്പെടുന്നത് അവിടെ അവരുവായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ബാക്കി ഉള്ള ഡീലിങ്സ് ഞാൻ നടപ്പാക്കിത്തരാം അപ്പം ആ വ് ആ ഇതെന്റെ നമ്പറാണ് സാറെ എന്തേലും ആവശ്യമുണ്ടെങ്കില് ഇത് വിളിച്ചോ പിന്നെ അതുമല്ല വേറെന്തെങ്കിലും ഇപ്പം വീട് വെക്കാനുള്ളതോ അങ്ങനെ വീട് വാങ്ങാമെങ്കിൽ ചെറുത് ആള്ക്കാര് പാര്ട്ടികള്ക്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ കസ്റ്റഡിയിൽ സ്ഥലം കിടപ്പുണ്ട് ആ ആ ഓക്കെ സാറെ അപ്പം ഞാൻ സാറ് ആവശ്യമുള്ള സമയത്ത് എന്നെയൊന്ന് വിളിച്ചാൽ മതി